ഹലോ എന്നതാണെടാ തോമസുകുട്ടി ആ എന്നാ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു ഒന്ന് പുറത്തിറങ്ങാഞ്ഞിട്ടൊരു ഒരു സുമാറില്ല എത്ര നാളായി കൊറോണയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ആ ഒരു ജോറായിട്ട് അങ്ങോട്ട് വരുന്നതല്ലെ ഉള്ളു എത്ര നാളായി ഒന്ന് കൂടിയിട്ട് എവിടെയാണെടൊ പോകണ്ടെ

നല്ല ഐഡിയ കാരണമുണ്ടല്ലൊ അവിടെ നമ്മുടെ ഈ വട്ടക്കായൽ ഇല്ലെ നീ പോയിട്ടുണ്ടൊ വട്ടക്കായൽ ഹൗസ്ബോട്ട് ആ ആ ആ കൂട്ടുകാർ മതി ഫാമിലി വേണ്ട അടിച്ചു പൊളിക്കണം അപ്പം ആതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ നല്ലൊരു കള്ളുഷാപ്പുണ്ടെടാ നല്ല കൊഞ്ചു കറി കിട്ടും കൊഞ്ചു കറി നല്ല എരിവിലിങ്ങനെ നല്ല താറാവിനേക്കാളും നല്ല ടേസ്റ്റ് കൊഞ്ചു കറി ഉണ്ടല്ലൊ ഈ എരിവ് നല്ലതായിട്ട് പുകച്ച് അതും നല്ല കള്ള് നല്ല മൂത്ത കള്ളുമായിട്ട് കുടിക്കണം ടച്ചി അതിനുള്ള ടച്ചിങ്ങ്സാണ് അതിൻ്റെ ടച്ചിങ്ങ്സാണ് ഈ നല്ല കള്ളാണ് അവിടെത്തന്നെ അവിടുത്തെ തെങ്ങിൽ നിന്നു തന്നെ ചെത്തിയെടുക്കുന്ന കള്ളാണ് നല്ല ഫ്രഷ് സാധനമാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ടച്ചിങ്ങ്സും കൂടെ ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലൊ എൻ്റെ പൊന്നോ എന്നാ സൂപ്പറാണെന്നറിയാമോ ആ ആ ആ എന്നത്തേക്കാണെങ്കിലും കൊഞ്ച് റോസ്റ്റുണ്ട് പിന്നെ പിന്നെ ഇവിടത്തെ വെറൈറ്റി വെറൈറ്റി പിന്നെ അത് അവിടെ കള്ളുണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ഈ വെള്ളത്തിനടിയിൽ ആണതിൻ്റെ ആ ശേഖരണമെന്നാണ് പറയുന്നത് വെള്ളത്തിനടിയിൽ വെള്ളം ഇത് വാറ്റിയതുകൊണ്ട് വെള്ളത്തിനടിയിൽ വെക്കുമെന്നൊ അപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന തണുപ്പാണെന്നൊ അതുകൊണ്ടിതിന് ഭയങ്കര ടേസ്റ്റാണെന്നൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എടൊ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടെ ഉള്ളു ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലെ അപ്പോൾ എനിക്കിതിനെ വായിലിങ്ങനെ വെള്ളവും ഊറുകയാണ് ആ ഈ പ്രാവിശ്യവും പറ്റും ഇത് ആ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല എത്ര നാൾ ഇനി നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല അത്ര ഉള്ള ലൈഫ് നമുക്ക് ജോറാക്കാമെന്നേ ആ

അവിടുത്തെ കക്കയിറച്ചിയിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കപ്പയും കക്കയിറച്ചിയുമാണ് അവിടുത്തെ ഇത് കോമ്പിനേഷനെ അപ്പോൾ നല്ല കപ്പ കപ്പ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ കൂടെ കക്കയിറച്ചി കൂടെ കൂട്ടണം കക്കയിറച്ചി ആണെങ്കിൽ നമ്മൾ തേങ്ങാപ്പീരയൊന്നും ഇട്ട് വെക്കുന്നതല്ല അല്ലാതെ നല്ല സൂപ്പറായിട്ടിങ്ങനെ നല്ല മുളകൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പം ടേസ്റ്റ് കൂടുകയേ ഇതും ആ ആ എന്നാൽ ശരി എന്ന് എന്നത്തേക്ക് പോകണം ആ ഈയാഴ്ച്ച അല്ലെങ്കിൽ അപ്പോൾ ഈ വെള്ളിയാഴ്ച്ച വേണ്ട ശനിയാഴ്ച്ച ആക്കിയാലോ ശരി എന്നാൽ ഒക്കെ